നമ്മള് മൃഗങ്ങളെ വാങ്ങുന്നത് മൃഗങ്ങളെ കൂടുതലായിട്ടു വളർത്തുന്ന ഫാമുകളിൽനിന്നും മറ്റുമാണ് മൃഗങ്ങളെ വാങ്ങുന്നത് കോഴി ആട് തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളാണ്

ഇടത്തൊരു പശുവുണ്ട് കറവ ആവശ്യത്തിനു വേണ്ടി പശു വളർത്തുന്നുണ്ട് വില ഇന്ന് മാർക്കറ്റില് ഉള്ള വിലകള് തന്നെയാണ് കൊടുക്കുന്നത്

വാങ്ങാൻ കിട്ടാറുണ്ട് എന്നാൽ പശുവിൻ്റെ ഒന്നും അങ്ങനെയല്ല പാലിൻ്റെ ഉൽപ്പാദനവും മറ്റും ഇതൊക്കെ അനുസരിച്ചാണ് പശുവിൻ്റെ വില നിർണ്ണയിക്കുന്നത്